ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടു വരുന്നത് സ്മാട്ട് ഫോണുകളിൽ ഏറ്റവും ഉപയോഗിച്ചു കൊണ്ടു വരുന്നത് ഇന്സ്റ്റഗ്രാം ഫേസ്ബുക്ക് വാട്ട്സപ്പ് ടുറ്ററ് ടെലഗ്രാം അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് ആപ്പുകൾ ഇന്ന് ഇപ്പം ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളിൽ അവൈലബിൾ ആണ് അത്കൊണ്ട് നല്ല വശങ്ങളുണ്ട് ചീത്ത വശങ്ങളുണ്ട് സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് സ്മാട്ട് ഫോണുകളെ ഉപയോഗം കൊണ്ട് ഒരുപാട് നല്ല നന്മകൾക്ക് ചെയ്യാനും സാധിക്കും അതു പോലെ തന്നെ ഒരുപാട് ദൂശ്യ വശങ്ങളുമുണ്ട് ഇതിലേറ്റവും നൻമയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞ നമ്മൾക്ക് സ്വദേശത്തും വിദേശത്തും ഇരിക്കുന്നവരെ തമ്മില് നേരില് കാണാതെ അവരുമായിട്ട് സംസാരിക്കാനും അവരുടെ സുഖ വിവരങ്ങള് അറിയാനും അവരെ കണ്ടു കൊണ്ട് സംസാരിക്കാന് ന ക്ക് സാധിക്കുന്നുണ്ട് നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും എല്ലാ കാര്യങ്ങളിലും അപ്ഡേഷന് അപ്ഡേഷന് വരുത്താറുണ്ട് എപ്പോഴും എല്ലാ കാര്യങ്ങളും അറിയാന് സാധിപ്പെട്ട അപ്പപ്പം നമുക്ക് അറിയാന് സാധിക്കും അതുപോലെ തന്നെ ഇതിന് ദൂശ്യ വശം എന്താണെന്ന് വച്ചാൽ നമ്മുടെ ഈ ഇപ്പോഴത്തെ ന്യൂ ജെൻറേഷന് ചെറിയ കുട്ടികള് തൊട്ട് അറിയേണ്ടതും അറിഞ്ഞിരിക്കുന്നതും അറിയാത്തതും അറിയേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടികള്ക്കിടയിൽ അതിന്റെ അവൈലബിളിറ്റി ഒരുപാട് കൂടുതലാണ് കുട്ടികള്ക്ക് ഉള്ളിലേക്ക് ഇത്പോലെ ഗെയ്മുകൾ അതിന്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ചീത്ത വശങ്ങളുമുണ്ട് ഇതിൽ കൂടുതലും ഒരു നൂറ് ശതമാനം വച്ചാൽ നോക്കിയാല് അമ്പത് ശതമാനം ഇതിൻ്റെ നല്ല വശങ്ങളും ഒരു അമ്പപത് ശതമാനം അതിന്റെ ദൂശ്യ വശങ്ങളുമാണ് അതു കൊണ്ട് തന്നെ നമ്മള്ക്ക് ഇതിന്റെ ദൂശ്യ വശങ്ങൾ കുട്ടികളുടെ പഠന രംഗത്ത് ഒരുപാട് അവറ് ഉപയോഗം കോവിഡ് പോലെയുള്ള കാലഘട്ടങ്ങളിൽ കുട്ടികൾ പഠന രംഗത്തെ ഇതിനെ എത്തിക്കാന് ഒരുപാട് കൈവരിച്ചിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റേതായിട്ടുള്ള ഒരുപാട് നല്ല വശങ്ങളും ഇതിലുണ്ട് എന്നാല് ഇതിന്റെ ദൂശ്യ വശങ്ങള് കുട്ടികള്ക്കിടയിൽ ഫോണിന്റെ ദുരുപയോഗം കൂടുകയും ഗെയിമുകള് പോലെയുള്ള പാര്ട്ടുകളിള് കുട്ടികളെ അഡിക്ഷൻ പോലെയുള്ള സംഭവങ്ങളാക്കുകയും അതില് കുഞ്ഞുങ്ങൾക്ക് ഒരു അതില് നിന്നൊരു വിമോചനം കിട്ടാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരിന്നില്ല എല്ലാ വിധ കാര്യങ്ങളിലും കുട്ടികളുടെ അവരുടെ കഴിവുകള് ആർജിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് കുഞ്ഞിൻ്റെ മൊബൈലിന് അഡിക്ഷനായി ഇന്സ്റ്റഗ്രാമ് ഫേസ്ബുക്ക് വാട്ട്സപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒക്കെ തന്നെ അവരുടെ ശ്രദ്ധ ചെലുത്തി കൂടുതലും അതിലേയ്ക്കാണ് കുഞ്ഞുങ്ങൾ കൊണ്ട് ചെന്നു കൊണ്ടിരിന്നത് ഇത്കൊണ്ട് ഉണ്ടാവുന്ന ദോഷ ഫലങ്ങൾ കുഞ്ഞുങ്ങളുടെ ബുദ്ധി വളര്ച്ചയെ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയേക്കും അതിൽ അവർ അത്കൊണ്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടുകയും ചെയ്യുന്നു ഡീയഡിഷന് സെന്ററുകൾ പോലെയുള്ള രംഗങ്ങളിൽ ആള്കള്ക്ക് ആളുകള്ക്ക് ആളുകൾക്ക് അവിടെ കുഞ്ഞുങ്ങളെ എത്തികീ വളരേ ദയനീയപൂര്വ്വം നമ്മൾ എത്തിക്കേണ്ട ആ കടനകൾ എത്തിയിട്ടുണ്ട് വീഡിയോ കോളിൽ ഓരോ വീഡിയോസ് പ്രചരണത്തിലൂടെയും ഒരുപാട് കുട്ടികളുടെ ജീവിതം നശിക്കുകയും വിവരമില്ലാതെ അതായത് ബുദ്ധി ഉറയ്ക്കുന്നതിന് മുമ്പെ കുഞ്ഞുങ്ങൾ

അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അതിന്റെ ഉള്ളൊരു നല്ല വശവും ഉണ്ട് ഏതൊരു ഏതൊരു സ്മാട്ട് ഫോൺ ആയാലും ഏത് ആപ്പുകളാണെങ്കിലും നമ്മൾ അത് ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും അതിന്റെ ദുരുപയോഗവും നല്ല വശവും ചീത്ത വശവും നല്ല വശം എപ്പോഴും നമ്മള് നല്ലതിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക എന്നല്ല പഷെ ഒരു പരിധിയില് കൂട്തല് നമ്മള് ഫോണ് ഉപയോഗിച്ച് അതിന്റെ ആവശ്യഘടനയെ ഉള്ക്കൊള്ളാതെ അതിന്റെ വേറെ എന്തിനെ എങ്കിലും തന്നെ കാണിച്ചു കൊണ്ട് ഇരിക്കുമ്പത്തേക്കുവാണ് ഫോണ് നമ്മളുടെ ഈ ഓരോ ആപ്പുകളും മണീച്ചെയിൻ അല്ലെങ്കില് ചീട്ട് റമ്മി റമ്മി റങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് സംഭവ വൃതാനത്തിൽ ചെന്ന് പിടിക്കുകയും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടുകളുണ്ടാകുകയും പലരുടെയും ജീവിതം നശിച്ചു നശിക്കും ജീവിതം നശീകരണത്തിനും കാരണമാവുന്നുണ്ട്